ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ചിയാൻ ആരംഭിച്ചത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് കാരണം ആ പോലെ അപ്പഴ് എനിക്ക് അങ്ങനെ അന്നേരം ആണ് കുറച്ച് ഫ്രീ ആയത് അതുവരെ പഠിച്ചൊക്കെ നടക്കുവായിരുന്നു അപ്പോള് പഠിച്ച് സംബന്ധിച്ചുള്ള ജോലിയെ കിട്ടാതെ വന്നപ്പോള് അപ്പോള് എനിക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാനം വേണം വീട്ടിലിരുന്നോണ്ട് കുട്ടികളെയും വളർത്തി വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു വരുമാനം വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാന് അതിനുശേഷം തയ്യല് പഠിക്കാനായിട്ട് തുട പോയത് അപ്പോള് തന്നെ തയ്യല് പഠിക്കാൻ പോവാൻ പോയത് തന്നെ എനിക്ക് സ്ഥിരവരുമാനം വേണമെന്ന് ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോള് അങ്ങനെ ആവുമ്പോള് നമ്മൾടെ വീട്ടിലിരുന്ന് കൊണ്ടുതന്നെ നമ്മക്ക് നെ സമ്പാദിക്കാൻ പറ്റും പൈസ ഉണ്ടാക്കാൻ പറ്റും കാരണം വേറെ എങ്ങും പോവണ്ട നമ്മൾ വേറെങ്ങും സമയം കളയണ്ട ചെലവഴിക്കണ്ട അപ്പോള് നമ്മളുടെ സമയവും പോവത്തില്ല വീട്ടിലെ ജോലികളും നടക്കും നമ്മള്ക്ക് സ്വന്തമായിട്ട് ചെയ്യേം ചെയ്യാം ഞാന് അതു മാത്രമല്ല ഞാൻ കൂടുതലായിട്ട് തയ്യല് പഠിച്ച് ഞാൻ തയ്യല് പഠിപ്പിക്കുന്നും ഉണ്ടായിരുന്നു അപ്പോള് എൻ്റെ വീട്ടിൽ തന്നെ ആൾക്കാര് വന്ന് ഇപ്പോഴുള്ള കുട്ടികള് വരുമായിരുന്നു പഠിപ്പിക്കാനായിട്ട് അങ്ങനെ ഞാന് ആ രീതിയിലും പഠിപ്പിക്കുന്നുണ്ട് അപ്പോള് പൈസ പൈസ ഉണ്ടാക്കാം അപ്പോള് നമ്മള്ക്ക് ചെറിയ വരുമാനം ആണേലും നമ്മള്ക്കതിൽ നിന്നും കിട്ടും എന്ന് നമ്മള്ക്ക് ഒരു കാരണം എന്ന് വച്ചാല് മറ്റുള്ള എന്നു പറഞ്ഞാല് നമ്മൾ പുറത്തൊക്കെ പോയി നിന്ന് ചെയ്യാൻ കുട്ടികളെ ഇട്ടിട്ട് പോവാനും തനിയെ ആയതു കാരണം പറ്റത്തില്ലാത്തത് വന്നതുകൊണ്ടാണ് സ്റ്റിച്ചിങ് തുടർച്ചയായിട്ട് ചെയ്തു തുടങ്ങിയത് പിന്നെ അത് അതിനുള്ള പ്രചോദനം എന്നു പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നല്ല ഒരു രീതിയില് വരുമാനം കിട്ടുമെന്നു കാണുമ്പോൾ നമുക്കത് മുന്നോട്ട് കാണാം നമ്മുക്കതിനെ മടുപ്പില്ലല്ലോ കാരണം നമ്മള്ക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു കാരണം എന്നെന്ന് വെച്ചാല് നമ്മള്ക്ക് ഇഷ്ടമാണ് അത് ചെയ്യാനായിട്ട് ഇഷ്ടം മാത്രമല്ല അത് മാത്രമല്ല നമ്മളുടെ വരുമാനം ഒരു സൈഡില് വരുമാനം ആവും എന്ന് കണ്ടതുകൊണ്ടാണ് പിന്നെ ഇതിനാത്ത് പറയാനായിട്ട് ഞാൻ ഇപ്പോള് തുടർന്നു കൊണ്ടുതന്നെ ഇപ്പോഴും തുടർന്നോണ്ടു പോവാണ് കാരണം ഇപ്പോള് നമ്മള്ക്ക് പുറത്തുപോയി ചെയ്യുന്നതിനെ കാട്ടിലും നല്ലത് നമ്മുടെ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന് ഉള്ളതുകൊണ്ടാണ് ഏറെ വേറൊരു കടയിലൊക്കെ പോയിരുന്ന് തയ്ക്കാന്ന് പറഞ്ഞാല് നമ്മള്ക്ക് പാടാണ് പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നുള്ള തയ്ക്കുന്നത് കൊണ്ട് എനിക്കതുകൊണ്ട് കൂടുതലും സൗകര്യം അതാണ് അതുകൊണ്ട് നമ്മള്ക്ക് തുടരുന്നതിനു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ഇത് തുടർന്നുകൊണ്ട് പോവുന്നു പിന്നെ അതുപോലെ തയ്ക്കാനും കിട്ടും തയ്ക്കാൻ കിട്ടുകയും ചെയ്യും അപ്പോള് നമ്മള്ക്ക് കൂടുതല് താല്പര്യം വരുമ്പോള് ആവശ്യങ്ങള് കൂടുതലാണ് സാമ്പത്തികമായിട്ട് നമ്മള്ക്ക് ആ ഒരു ഇത് കിട്ടുന്നതുകൊണ്ടാണല്ലോ നമ്മള്ക്ക് കൂടുതല് ഇതിൽ ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോള് നമ്മള്ക്ക് അത് പണം സമ്പാദിക്കാനും പറ്റുന്നുണ്ട് ഇപ്പോള് ഒത്തിരിയൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ അപ്പോള് അതുകൊണ്ട് നമ്മള്ക്ക് നമ്മുടെ കാര്യങ്ങളും നടക്കും എല്ലാം മുമ്പോട്ട് നല്ലരീതിയിൽ പോകാൻ പറ്റും അതുകൊണ്ട് നമ്മളതൊരു കളയാതെ ഒന്ന് നിർത്താൻ നിർത്താതെ മുന്നോട്ടുകൊണ്ടുപോവുന്നു